എൻ്റെ പാസ്സ്പോർട്ടിൻ്റെ വിലാസം മാറ്റുന്നതിന് ഞാനെന്താണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ താമസിച്ചിരുന്നത് ആലപ്പുഴയായിരുന്നു ഇപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് അപ്പോൾ അതിനു വേണ്ടുന്ന കാര്യങ്ങളെങ്ങനെയൊക്കെയാണ് എൻറ്റൊരു കൂട്ടുകാരി പറഞ്ഞിരുന്നത് അതിനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പേപ്പറൊക്കെ ശരിയാക്കണമെന്നാണ് പറഞ്ഞിരുന്നത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പോലീസ് വെരിഫിക്കേഷനും അതൊക്കെയുണ്ടായിരുന്നു ഇപ്പോളത് എങ്ങനെയാണെന്ന് എന്നാലും ഒരു അക്ഷയയിൽ പോയാലും ശരിയാകും എന്നാണ് എൻറ്റൊരു കൂട്ടുകാരി പറഞ്ഞത് എൻ്റെ നേരത്തത്തെ അഡ്രസ്സെന്നു പറഞ്ഞാൽ മുഹമ്മ കഞ്ഞിക്കുഴി ആ ആലപ്പുഴ എന്നതായിരുന്നു ഇപ്പോഴത്തത് പുതിയ വിലസമെന്നു പറയുന്നത് വെള്ളായണി തിരുവനന്തപുരമാണ് വരുന്നത് അത് എൻറ്റാധാറിലും അഡ്രസ്സ് വരുന്നത് ആലപ്പുഴയിലെ അഡ്രസ്സാണ് വരുന്നത്

അപ്പോൾ തിരുവനന്തപുരത്തുള്ള നമുക്ക് വീട്ടിൻ്റെ അഡ്രസ്സ് എടുക്കുന്നെങ്കിൽ നമുക്ക് റെസിഡെൻസിൻ്റെ അഡ്രസ്സു മേടിച്ചിട്ട് റെസിഡെൻസിൽ നിന്ന് പേപ്പർ വാങ്ങിയിട്ട് അവിടെ നിന്നുള്ളത് നമുക്ക് കൊടുക്കാവുന്നതാണ്